ആ വയനാട് റെസ്റ്റോറന്റ് ആരാണ് വിളിക്കുന്നത് ആ ആ ഇവിടെ ഇപ്പോൾ ട്രഡീഷണൽ ഫുഡ് ആയിട്ട് കാലും പത്തിരിയും അതുപോലെ കുഞ്ഞിപത്തിരി പിന്നെ പുഴുക്കുണ്ട് കേട്ടോ ബീഫ് ഇട്ടിട്ടുള്ള കപ്പ ഇട്ടിട്ടുള്ള ഒരു പുഴുക്കുണ്ട് പിന്നെ പിന്നെ കപ്പ് പിന്നെ പിടിയും കോഴിക്കറിയും അതൊക്കെയാണ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഒരു മെനുവിൽ ഇനിയും ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് എന്താണെന്നുവെച്ചാൽ ഓർഡർ ചെയ്യാം നിങ്ങളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെ വരുന്നതാണ് ആണോ ആ ആ ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം ഇവിടെ ബുക്കിങ്ങ് ഉണ്ട് നിങ്ങൾ എപ്പോൾ വരാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസം ആ ആ അപ്പോൾ എത്ര ദിവസം ഉണ്ടാവും ഒരാഴ്ച്ചയാണോ നിങ്ങൾക്ക് ഫുഡ് ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രം എങ്ങനെയാണ് ഫുഡ് ഏതൊക്കെ ദിവസങ്ങളിലാണ് വേണ്ടത് മതി ആ ആ അപ്പോൾ അപ്പോൾ രണ്ട് നേരത്തേത് എന്ന് പറയുമ്പോൾ പിന്നെ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ഒരു ഞാൻ പറയാം റേറ്റ് പറയാം സ്റ്റേ ചെയ്യുന്നുണ്ടോ നിങ്ങളിവിടെ ആ ഞങ്ങൾ സ്റ്റേ ചെയ്യാനൊരു സൗകര്യം ഒരുക്കുന്നുണ്ട് നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഭാഗമായിട്ട് തന്നെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് സ്റ്റേ ഒരു അപാർട്മെന്റ് പോലെ നൽകുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നാലായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ച എടുക്കുന്നതാണെങ്കിൽ അ അതനുസരിച്ച് വരും അതിൻ്റെ പാക്കേജ് ആയിട്ട് അങ്ങനെ ഒരു ഫുഡിനും സ്റ്റേയിനും കൂടെ ഒരു പാക്കേജ് പോലെ നിങ്ങൾക്ക് തരുന്നുണ്ട് അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം നിങ്ങൾ ഏതാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വാട്സാപ്പ് ചെയ്യാം എങ്ങനെയാണ് ഇവിടെ പാക്കേജ് എന്നൊക്കെ മ് മ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ ആ സൗകര്യം ചെയ്തുതരാം മ് ആ പിന്നെ വേ വേറെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് ഫംഗ്ഷൻ എന്തെങ്കിലും നടത്തണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊന്ന് അറിയിക്കണം ഫംഗ്ഷൻ ഒക്കെ എന്തെങ്കിലും നടത്തണമെങ്കിൽ പറഞ്ഞാമതി ഇവിടെ എല്ലാ സൗകര്യം ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെത്തന്നെ സ്റ്റേജ് ഒക്കെ ഒരുക്കി തരും ഒരു അതും ഒരു പാക്കേജ് ആയിട്ടാണ് നൽകുന്നത് ഒരു എമൗണ്ടിൽ അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ ആ ഓക്കെ